ആണോ

വേറെ എവിടെയേലും കൊണ്ടുപോയി കാണിച്ചിരുന്നോ

എന്നാൽ ഇന്ന് വന്ന് ഹോസ്പിറ്റലില് കാണിക്കാൻ പറ്റുമോ

എന്നാൽ ഞാൻ എന്നാൽ ഞാൻ മരുന്നെഴുതി തരാം ആ ആ ഞാൻ വാട്ട്സാപ്പിലിട്ട് തരാം മരുന്ന് അത് കുടിച്ച് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരിക അത് കുടിച്ചിട്ട് കുറവില്ലെങ്കില് ഹോസ്പിറ്റലിലേക്ക് വരിക ഇപ്പോൾ ഞാന് അതൊക്കെ വാട്ട്സപ്പില് ഇട്ട് തരാം എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാല് അതെ ആ ആയിക്കോട്ടെ ഇതൊരു മൂന്ന് ദിവസം കഴിച്ചുനോക്കുക എന്നിട്ട് കുറവില്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരിക